ഞാൻ ഒരു വസ്തു ഓർഡർ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ചെയ്തിട്ട് ഇതുവരേക്കും ഡെലിവറി ആയിട്ടില്ല അതിന് അതിൽനിന്ന് ഒരു അറിയിപ്പും എനിക്ക് ലഭിച്ചിട്ടില്ല അതിന് എനിക്ക് പരാതിപ്പെടാനും അഭ്യർത്ഥിക്കാനും ഞാൻ എവിടെയാണ് അപേക്ഷിക്കേണ്ടത് അഭ്യർത്ഥിക്കേണ്ടത് അപ്പോൾ വില്പനക്കാരനെയാണോ ഡെലിവറി കമ്പനിയെ ആണോ ബന്ധപ്പെടേണ്ടത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എത്രയും വേഗം ആ ഡെലിവറി സാധനങ്ങൾ ഡെലിവറി ചെയ്യേണ്ട സാധനങ്ങൾ ഞാൻ അപേക്ഷിച്ച സാധനങ്ങൾ എനിക്ക് എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടി എന്താ നടപടികൾ ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞ് തരണം അല്ലെങ്കിൽ അതിന് എന്താണ് ഫൈൻ അടക്കേണ്ടത് അല്ലെങ്കിൽ ആരെ പരാതിപ്പെടേണ്ടത് എവിടെയാണ് എന്നെ അറിയിക്കുക അത് ലഭിച്ചില്ലെങ്കിൽ ഞാൻ അതിന് ലീഗൽ ആയിട്ട് വേണ്ടത് നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുള്ളത് അറിയിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ നിങ്ങൾ പുതിയ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ബന്ധപ്പെടണം എന്ന് അപേക്ഷിക്കുകയാണ്